എൻ്റെ എഴുത്തിനെ മറ്റുള്ളവർ എഴുതാൻ സഹായം മുന്നോട്ട് വരാത്തത് എന്താന്നൊന്നും എനിക്ക് അറിയില്ല രാഷ്ട്രീയം പറഞ്ഞ രാഷ്ട്രീയം പോളിറ്റിക്സ് അതെന്ന് പറയുന്നത് എല്ലാവർക്കും ഉപായമാണ് അതിനെ തൊടാൻ തൊട്ട് കഴിഞ്ഞാൽ തീയാണ് തീയല്ല വെട്ടാണ് വെട്ടും അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ കയറുകായെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൊന്നും മുന്നോട്ട് വരുകയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എടുത്ത് പറയാൻ പോലും ഭയമാണ് എല്ലാവർക്കും ഒരാൾ ഇപ്പം ഒരു പാർട്ടിയിൽ ആളുകൾ എന്തേലും പറഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പാർട്ടികാർ അവന് മറ്റേ പാർട്ടിലുള്ളവണം അവന് അങ്ങനെയാണ് അവനെ കൊല്ലണം വെട്ടണം ചിത്തണം പിന്നെ അവന്റെ കുടുംബക്കാർക്ക് പോലും ആർക്കും ജീവിക്കാൻ പറ്റില്ല പിന്നെ അവരുടെ ജീവിതം വളരെ കഷ്ടമായി പോകും അതുകൊണ്ട് തന്നെ ആരും കേൾക്കുന്നില്ല കാണുന്നില്ല പറയുന്നില്ല അങ്ങനെ ജീവിതം നടത്തിയങ്ങ് കൊണ്ടു പോകുന്നെല്ലാവരും എല്ലാവരുടെ മനസ്സിലുണ്ട് വിളിച്ച് പറയണം അങ്ങനെ പറയണം ഇങ്ങനെ പറയണം പറഞ്ഞില്ലേ പറഞ്ഞ് കഴിഞ്ഞ വെട്ടായി കുത്തായി കൊലപാതകി വർഗീയതായി അതുകൊണ്ട് അതിനെ അങ്ങനെയങ്ങ് കളയുകയാണത് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുക എന്താണ് രാഷ്ട്രീയത്തിൽ മെച്ചപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയത്തിൽ മെച്ചപ്പെടുത്താനൊന്നും ഇല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്താ ഒന്നുമില്ല അതാണ് രാഷ്ട്രീയം രാജഭരണകാലത്ത് അതിലേക്ക് വന്നാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ളുണ്ട് ഈ പറയുന്ന പോലെ കോടതിയിൽ കുറേ കേസുകൾ വാധിക്കൊന്നുമില്ല അങ്ങോട്ട് ഇങ്ങോട്ട് കേസുകൾ വാധിച്ചൽ ഒരു പ്രതി ശിക്ഷ അർഹിക്കുന്ന ആളാണോ ഇല്ലയോന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് ശരിയാണ് പക്ഷേ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നാതണ്ട് രാജ്യഭരണമാണ് ഏറ്റവും നല്ലതെന്നും അതുകൊണ്ട് നമ്മളതിനെ പറയുന്നത് എന്നാ രാഷ്ട്രീയ പരമായിട്ട് ചിന്തിച്ചാൽ രാഷ്ട്രീയം വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങളിലാണ് നമ്മൾ യോജിക്കാൻ പറ്റാതിരിക്കുന്നത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യങ്ങൾ അതാണെങ്കിലും നമ്മുടെ ജീവിത്തെ അനാവശ്യമായിട്ട് രാഷ്ട്രീയം ഇടപെടുന്നുണ്ട് അതാണ് പ്രശ്നം

പിന്നെ അവരുടെ രീതികൾ മെച്ചപ്പെടുത്തണം അതായത് രാഷ്ട്രീയത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ഉൾപ്പെടുന്നത് നല്ല നല്ല കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഒരുപാട് കുട്ടികൾക്കെ വിദ്യാഭ്യാസം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് എല്ലാവർക്കും കരണ്ട് ആഹാരം വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രാഷ്ട്രയത്തിലൂടെ നടത്തുന്നത് ഇനിയും കുറേ കൂടെയൊക്കെ മെച്ചപ്പെട്ട് വന്നാൽ നമ്മുടെ രാഷ്ട്രീയം വളരെ നന്നായിരിക്കും രാജഭരണ ക ഭരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല എന്തിനെ എതിർക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് രാഷ്ട്രീയത്തിക്കാട്ടിൽ കൂടുതൽ നല്ലത് രാജഭരണം നിന്നാൽ ഉറപ്പിച്ച് പറയുന്ന ഒരാളും അല്ല ഞാൻ എന്നാൽ ചില സാഹര്യങ്ങളിൽ നിന്നാണ് ഞാനിങ്ങനെ പറയുന്നത് രാഷ്ട്രീയത്തെക്കാൾ നല്ലത് രാജഭരണമാണല്ലോ മെച്ചപ്പെടുത്തണം രാഷ്ട്രീയം മെച്ചപ്പെടുത്തണം ഒരുപാട് പേടുത്താനുണ്ട് രാഷ്ട്രീയം മെച്ചം